ഹലോ അതെ മാഡം ചെ ചെടിയല്ല ഇവിടെ കൂടുതലും വിത്തുകളും പിന്നെ ചെടികളുടെ കീടനാശിനികളും അവർക്ക് വേ വേണ്ട സാധനങ്ങളൊക്കെയാണ് ഫെർട്ടിലൈസേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എന്താണ് മാഡത്തിന് വേണ്ടത് ആ പച്ചക്കറി ചെടികളുടെ വിത്തുകളുണ്ട് പിന്നെ നമ്മള് വിത്തുകൾ മുളപ്പിച്ച് തൈകൾ ആക്കിയും കൊടുക്കും ഇല്ല ഫ്ലവറിങ് പ്ലാൻസായിട്ട് വന്നിട്ടില്ല മാഡം ഇപ്പം കട സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളു അപ്പം നമ്മൾ ഇനി കുറച്ചുംകൂടി കഴിഞ്ഞിട്ട് ഫ്ലവറിങ് പ്ലാൻസും കൂടെ ആകാമെന്ന് വിചാരിക്കുന്നു ഇപ്പം നമ്മള് പച്ചക്കറി വിത്തുകളും തൈകളും പിന്നെ അത് അതിന് വേണ്ട ഫെർട്ടിലൈസേഴ്സും പിന്നെ ഈ കൃഷിക്ക് ആവശ്യമായ ഉപകരണങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് പയറിൻ്റെ ഉണ്ട് പയർ നമുക്ക് സാധാരണ നമ്മുടെ പയറുണ്ട് പിന്നെ ഈ ഇളൻ മീറ്റർ പായറെന്നുപറയുന്ന സാധനമുണ്ട് എന്ന് വെച്ചാൽ നല്ല നീളത്തിനുള്ളത് പിന്നെ വള്ളിപ്പയർ അത് തന്നെ വള്ളിപയറുതന്നെ നല്ല നീളത്തിൽ നീളം വെക്കുന്നതുണ്ട് ചെറിയ നീളം കുറഞ്ഞ ടൈപ്പുണ്ട് അതെ അതെ സീഡ്സ് ഉണ്ട് പിന്നെ നമ്മൾ ഒരു ഒരാഴ്ചകളായ പ്രായമായ തൈകളും ഉണ്ട് ഹലോ നമ്മളെ അതുമതി അതുമതി നമ്മള് രാവിലെ ഒൻപത് മണിക്ക് തുറക്കും വൈകുന്നേരം അഞ്ചുമണിവരെ കടയുണ്ടാകും ടൂൾസ് നമുക്ക് മൺചട്ടിയുണ്ട് പിക്കാസുണ്ട് പിന്നെ ചെറിയ ഇങ്ങനെ മണ്ണ് കോരുന്ന സാധനമുണ്ട് പിന്നെ വലിയ സാധനങ്ങളൊക്കെ ആണെങ്കില് മൺവെട്ടി നീളം കൂടിയ മൺവെട്ടി പിന്നെ പുല്ല് പറിക്കുന്ന സാധനകളൊക്കെയുണ്ട്

ഉണ്ട് ഉണ്ട് നമ്മളെ ചെറിയ രീതിയിലുള്ളതും കൊറച്ച് വല്യ കൃഷിക്ക് ആവശ്യമായിട്ടുള്ളതും ഉണ്ട് നമ്മുടെ വില അനുസരിച്ച് മാഡത്തിൻ്റെ ഒരു ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് നോക്കാം മാം അത് നമ്മുടെ കെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട് അത് നമ്മള് കൂടുതല് പ്രോത്സാഹിപ്പിക്കാറില്ല പക്ഷെ എന്നാലും തെങ്ങിനും അങ്ങനയുളള തെങ്ങ് കവുങ്ങ് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ആണ് കൂടുതലും ഉള്ളത് ഉപയോഗിക്കാറ് എന്നാൽ പച്ചക്കറി കൃഷിയാണെങ്കിൽ നമുക്കിവിടെ ഓർഗാനിക്കായിട്ട് ജൈവ വളങ്ങളുണ്ട് നമ്മള് വെച്ചിട്ടുണ്ട് ഒരു കിലോയുടെ രണ്ട് കിലോയുടെ ഒക്കെയുണ്ട് ആ ആ അതെ അതെ അത് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ അഞ്ചു കിലോയുടെയും പത്ത് കിലോയുടെയും പാക്കറ്റുകളായിട്ടാണ് ഉള്ളത് പിന്നെ അതിൽ കൂടുതലായിട്ട് വേണമെങ്കിലും നമ്മൾ വരുത്തിക്കൊടുക്കും ഉണ്ട് ഉണ്ട് ഉണ്ട് അതെല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അതെല്ലാം ഉണ്ട് എല്ലും പൊടിയുണ്ട് ചാണകപൊടി ഉണ്ട് പിന്നെ വേപ്പിൻപിണ്ണാക്കുണ്ട് പിന്നെ നമുക്ക് അതുകൂടാതെ ചെടികൾക്ക് വേണ്ടിയിട്ട് അല്ലാത്ത ഫെർട്ടിലൈസേഴ്സും ഉണ്ട് ഇ ബ ബയോ പി വി സൊല്യൂഷൻ അങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെയുണ്ട് ഉണ്ട് ഉണ്ട് ചെടിച്ചട്ടികൾ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഇല്ല നമ്മള് മൺചട്ടികൾ മാത്രമേ വിൽക്കുന്നുള്ളൂ മാഡത്തിന് ആ ഞായറാഴ്ച്ച ഇല്ല ബാക്കി എല്ലാ ദിവസവും ഉണ്ട്

ആ നമുക്ക് പച്ചക്കറി തൈകൾ ഉണ്ട് മാഡം അപ്പം വന്നുനോക്കി നല്ല ഹെൽത്തി ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാം ആ ഓക്കെ ഓക്കെ ആ ശരി മാഡം ശരി ഓക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ആ ഓക്കെ മ്മ്